എൻ്റെ വീട്ടിൽ ഒരൂ പൂന്തോട്ടം ഉണ്ട് പിന്നെ ഒരു കൃഷിത്തോട്ടം ഉണ്ട് പൂന്തോട്ടത്തിൽ ജമന്തി വെന്തി ഡാലിയ മുല്ല ഇങ്ങനെയുള്ള പൂക്കൾ വച്ച് പിടിപ്പിക്കാറുണ്ട് അത് അമ്പലത്തിലെ ആവശ്യങ്ങൾക്കും കൊടുക്കാറുണ്ട് കടകളിലും കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ കല്ല്യാണങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ മുല്ലയുടെ ഒക്കെ റോസിൻ്റെ ഒക്കെ പൂക്കൾ അവർ വന്ന് വാങ്ങാറുണ്ട് കൊടുക്കാറും ഉണ്ട് ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കാറുണ്ട് പിന്നെ പഴവർഗ്ഗങ്ങളെന്ന് വച്ചാൽ വീട്ടിൽ ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളുമുണ്ട് വാഴ റെമ്പുട്ടാൻ സപ്പോട്ട മാമ്പഴം വാഴ തന്നെ രണ്ട് മൂന്ന് സൈസ് ഉണ്ട് അതിൽ ഏത്തക്കായ ഞങ്ങൾ വറുത്ത് സേയില് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പഴ വർഗ്ഗങ്ങൾ ഞങ്ങൾ സേയില് ചെയ്യുന്നു റെമ്പൂട്ടാൻ മാതള നാരങ്ങ സപ്പോട്ട ഇതെല്ലാം ഞങ്ങൾ പുറമെ പറിച്ച് വിൽപ്പനയ്ക്ക് കൊടുക്കും ഞങ്ങൾ വീട്ടിൽ തന്നെ വന്ന് ആവിശ്യക്കാർ വരിക ആണെങ്കിൽ അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ പല പഴങ്ങളും പൂക്കളും ഞങ്ങൾ വിറ്റ് അങ്ങനെ ഒരു സമ്പാദ്യം കണ്ടെത്തുന്നുണ്ട് പല വഴിക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ആവിശ്യങ്ങളും ഭക്ഷണത്തിൻ്റെ ആവിശ്യങ്ങളും ഞങ്ങളുടെ അങ്ങനെ നടന്ന് പോകുന്നുണ്ട് പഴം പഴുപ്പിച്ച് ഞങ്ങൾ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കഴിക്കാറുണ്ട് കായ ചെറു കായകൾ ഞങ്ങൾ വീട്ടാവിശ്യങ്ങൾക്ക് എടുക്കാറുണ്ട്